ആ അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു വാങ്ങിയ ഒരു പ്രോഡക്റ്റാണ് അതെന്താ പറയുക ഷർട്ട് ഫാമിലിയിൽ ഒരു മാരേജ് ഉണ്ടായപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വാങ്ങിയ ഒരു ഷർട്ട് ആയിരുന്നു അതേതയാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു വാങ്ങിയ ഒരു ഷർട്ടാണ് ചെറിയൊരു ലൈൻസ്സൊക്കെ ആയിട്ട് അപ്പം അത് അതിൻ്റെ ക്ലോത്ത് എന്ന് ക്ലോത്ത് പറയുകയാണെങ്കിൽ മറ്റേ ഇപ്പത്തെ ഒരു കാലാവസ്ഥയൊക്കെ നോക്കിയിട്ട് ഇപ്പം ഉള്ള പോളിസ്റ്റർ ടച്ച് ഒന്നുമില്ല വാങ്ങിച്ച് കോട്ടൺ തന്നെയാണ് വാങ്ങിയത് അതുകൊണ്ടും ചൂട് എടുക്കുവൊന്നുമില്ല നല്ല ഒരു പ്രോഡക്റ്റാണ് നല്ല നല്ല അടിപൊളി സാധനമാണ് സാധാരണ വാങ്ങുന്ന കടയിൽ നിന്ന് തന്നെയാണ് രണ്ട് മൂന്ന് കടകളുണ്ട് അതിൽ ഒര് കടയിൽ നിന്ന് വാങ്ങിയതാണ് കോട്ടൻ്റെ ഷർട്ട് ഒരൂ എണ്ണൂറ് തൊള്ളായിരം ആ റെയിഞ്ച് ഒരു ആ മിഡില് ആവറേജ് റേഞ്ച് ഉണ്ട് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഡിസ് ഡിസ്പ്ലേ കണ്ടപ്പോൾ അങ്ങനെ കയറിയതാണ് കടയിൽ സാധാരണ പോകുമ്പോൾ അങ്ങനെ ജോലിക്ക് പോകുന്ന സ്ഥലത്ത് ജോലിക്കിങ്ങനെ പോകുമ്പം കാണുന്ന ഒര് കടയാണ് അപ്പം ഡിസ്പ്ലേ കണ്ടപ്പം കയറിയതാണ് നല്ലിഷ് നല്ലൊരു ഷർട്ടാണ്